തുന്നലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധനങ്ങൾ നല്ല നൂലുകൾ നൂലുകൾ വാങ്ങണം കമ്പിളിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിവില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ കമ്പിളിയൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ തയ്ക്കാറുമില്ല അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവില്ല പിന്നെ തയ്യലിനെക്കുറിച്ചാണെങ്കിൽ നല്ല നൂലുകൾ നമ്മൾ നോക്കി വാങ്ങാറുണ്ട് പിന്നെ ഹൂക്ക് വാങ്ങണം പിന്നെ സൂചി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഷീനൊക്കെ ത പഴയ കാലത്തൊക്കെ മെഷീന് ചവിട്ടിയാണ് തയ്ക്കാറുള്ളത് ഇപ്പോൾ മെഷീന് ചവിട്ടണ്ട മോട്ടൊറൊക്കെ വച്ച് തയ്ക്കുന്നത് കൊണ്ട് എല്ലാം വളരെ എളുപ്പമാണ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നമ്മൾ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയി തയ്യലിൻ്റെ സാധനങ്ങളുള്ള കടകളിലൊക്കെ പോയി ഒരുമിച്ചാണ് എടുക്കാറ് ഒന്നൊന്നായിട്ട് വാങ്ങുകയാണേൽ അത് പൈസ കൂടും പെട്ടിക്കണക്കിനാണ് നൂൽ എല്ലാ സ ബട്ടന്സ് ഹൂക്ക് എല്ലാം വാങ്ങണത് പിന്നെ കത്രിക എന്ത് സാധനമായാലും പിന്നെ എല്ലാം അങ്ങനെയാണ് വാങ്ങാറുള്ളത് സ്റ്റിപ്പായാലും എല്ലാം അളന്നു മീറ്ററുകണക്കിന് വാങ്ങിക്കും കുറച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കത് ഒരുപാട് നഷ്ടം വരും അപ്പം ഒരുപാട് ഒരുമിച്ച് വാങ്ങിക്കുക ആണെങ്കിൽ നമുക്ക് ലാഭം ആണ് നൂലായാലും ഒരു പെട്ടി നൂലൊക്കെ എടുക്കുമ്പോഴത്തേക്കും വളരെ പൈസ കുറവായിരിക്കും നമ്മൾ ഒരു നൂൽ വാങ്ങിക്കുകയാണെങ്കിൽ മൂന്നര രൂപ നാല് രൂപയൊക്കെ ആകും വില സപ്രേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു പെട്ടി നൂലൊക്കെ എടുക്കുമ്പോൾ ഒരു നൂലിന് ഒരു രൂപ അൻപത് പൈസ രണ്ട് രൂപ ആ നിരക്കിലൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഏത് സാധനം വാങ്ങിച്ചാലും തയ്യലിൻ്റെ ഏത് സാധനമായാലും നമ്മൾ അ ഡസന് കണക്കിനൊക്കെ വാങ്ങാറുള്ളു പെട്ടിക്കണക്കിന് വാങ്ങാറുള്ളു ചെറുതായിട്ടൊന്നും വാങ്ങാറില്ല പിന്നെ സ്റ്റിപ്പായാലും അങ്ങനെയാണ് ഷര്ട്ടിൻ്റെ സ്റ്റിപ്പൊക്കെ നമ്മൾ ആ ഒരു ഡസന് രണ്ട് ഡസനൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ വെയ്ക്കാനാണെങ്കിൽ അത് നമ്മൾ മീറ്ററിൽ അളന്ന് വാങ്ങും പിന്നെ അങ്ങനെ